ആ എൻ്റെ പ്രദേശത്തുള്ള പ്രാദേശിക ചാനലുകൾ കേരളാ വിഷൻ പോലെയുള്ള ന്യൂസ് ചാനലുകളാണ് ഇവിടെ എൻ്റെ പ്രദേശത്ത് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാദേശിക ചാനൽ ചാനലുകളെപ്പോഴും മനുഷ്യ നമുക്ക് നമ്മൾക്ക് അ പ്രദേശവാസികൾക്ക് നല്ല ഗുണകരമായ രീതിയിൽതന്നെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ചാനലുകളിൽകൂടി പുറത്ത് വിടു വരുന്ന വർത്തകളിൽകൂടി നമുക്ക് നമ്മളേത് നാട്ടിലാണ് ജോലി ചെയ്യ് ചെയ്യുന്നതെങ്കിലും അവിട് അവിടെയുള്ളവർക്കും നമ്മളുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന പ്രാ നാട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ഉണ്ടാകുന്നത് എന്തൊക്കെ സംഭവവികാസങ്ങളുണ്ടായി എന്തൊക്കെ എന്തൊക്കെ നന്മകളുണ്ടായി എന്നുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഏത് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവർക്കും അറിയാൻ കഴിയുന്നത് നമ്മളുടെ പ്രദേശത്തുള്ള പ്രാദേശിക ടെലി ടെലിവിഷൻ ചാനലുകളിൽ കൂടെയാണ് പക്ഷെ ഇവിടത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പ്രാദേശിക ചാനലുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് മിക്കപ്പോഴും സത്യസന്ധമായി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സംപ്രേഷണം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭീഷണി ആകാറുണ്ട് കാരണം സത്യം സത്യമായും പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ നേരിടേണ്ടിവരുന്നു അതുകൊണ്ടുതന്നെ കാര്യങ്ങളുടെടെ ഒരു നിജസ്ഥിതി അവരന്വേഷിക്കുകയും അതിനുശേഷം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായിത്തന്നെ കണക്കാക്കേണ്ടതാണ് നമ്മൾ കാണുന്നത് അതുപോലെ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും എന്നുള്ളതും അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിലവിടെ സംഭവിക്കാൻ കാരണമെന്താണ് എന്നുള്ളതൊന്നും അറിയാതെ ആയിരിക്കും ഒരുപക്ഷെ ആ ചാനലുകൾ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്നതോ അങ്ങനെ കാര്യങ്ങളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് പിഴവുകൾ സംഭവിക്കാം സത്യം ഒരുപക്ഷെ വളച്ചൊടിക്കപ്പെടുകയോ അല്ലെങ്കിൽ സത്യം ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യേണ്ടതായ അവസരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായാൽ അത് ആ ചാനലുകാർക്ക് വളരെയേറെ ദോഷകരമായിട്ട് പിന്നീട് ഭവിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന വിഷ്വൽസ് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് അല്ലെങ്കിലത് എങ്ങനെയെക്കെയാണ് അത് സംഭവിക്കാനുണ്ടായ കാരണം എന്നുള്ളത് നമ്മൾ നന്നായിട്ട്തന്നെ വിലയിര് ത്തി വേണം അതിന് ഒരു അന് വിലയിരുത്തിയതിനുശേഷം മാത്രമേ അതിന് നമ്മളൊരു ഒരു അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാക ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരേക്സിഡെൻറ് വന്നാലോ അല്ലെങ്കില് ഒരു ഒരു കൊലപാതകം നടന്നാലോ അതൊക്കെ നമുക്ക് അതിൻ്റെ പിന്നിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിലതൊരു കള്ളപ്രചരണം നടത്തി ആൾക്കാരെ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണോ അവിടെ അവിടെ നടന്ന സംഭവങ്ങളിൽ എന്തെല്ലാം മാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അതിനുശേഷം ആ ചാനലുകൾ ഒന്നു പറയാനും അതനുസരിച്ച് ആളുകളിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു ഒരു സമയവും കൂടി അതിനുശേഷം കണ്ടെത്തണം പരിസരവാസികളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതരം തലത്തിലുള്ള അ അനുഭവങ്ങളായിരിക്കും അവര്ക്ക് പറയാനുള്ളത് അതൊക്കെ നമ്മൾ കേൾക്കുക എന്നതല്ലാതെ അതിൻ്റെ യഥാർത്ഥ സ് സത്യാവസ്ഥ നമ്മൾക്ക് ബോധ്യമാണെങ്കിൽ മാത്രമേ നടക്കുന്ന സംഭവമെന്താണെന്ന് നമ്മള്ക്ക് വിശ്വസിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് ചെല്ലാവൂ പിന്നേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്നു പറയുന്നത് എന്തു നടന്നാലും അതു മറ്റുള്ളവരിലേക്ക് എത്തുന്നു അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു അത് ക കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ പ്രെ പ്രദേശത്ത് നടന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ നമ്മളുടെ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്നവർക്കും അത് കാണാൻ പറ്റുന്നു അത് അവര്ക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറി ആ സമയത്ത് അറിയാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാന വിവരം തന്നെയാണ് പിന്നെ ജനങ്ങൾ പലപ്പോഴും പ്രാദേശിക ചാനലുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രധാന കാരവോ കാരണവും ഇത് തന്നെയായിരിക്കാം നമ്മളുടെ പല ഇനി ഒരുപാട് പ്രാദേശിക ചിനലുകൾത്തിൽ ൽതന്നെ ഒരുപാട് ഉണ്ട് ആ ഓരോ ചേനലുകാരും അവരുടെ അവര്ക്കു കിട്ടുന്ന ന്യൂസ് ആദ്യമേ സംപ്രേഷണംചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയും അതിനകത്ത് എൻ്റെ എൻ്റെ പ്രകടനമാണ് ഏറ്റവും മികച്ചത് എന്നുള്ള ഒരു ആ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്ക്ക എന്നുള്ളതും മാറ്റിനിർത്തിക്കൊണ്ട് സത്യാവസ്ഥ മാത്രം കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ സത്യമ നടന്ന സംഭവം അതിൻ്റെ ഒരു മായം പോലുമില്ലാതെ പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ചാനലുകൾക്ക് ഒരുവിധം നിലനില്പും പിടിച്ച് നിലനിൽപോ പിടിച്ചുനില്പോ ഉണ്ടാകാൻ അവസരം ലഭിക്കും അല്ലാതെ കേൾക്കുന്നത് കേൾക്കുന്ന മാത്രയിൽത്തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ന്യൂസും ഓൺതസ്പോട്ടിൽ എല്ലാം എല്ലാം ജനങ്ങളിലേക്കെത്തിക്കുന്നു എന്നുള്ളൊരു മത്സരബുദ്ധിയോടുകൂടിയാണ് അവർ അവർ അവരുടെ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചാനലുകാർ ചാനലുകൾ അധികകാലം നീണ്ടുനിൽക്കുകയില്ല അതുകൊണ്ടുതന്നെ എപ്പോഴും എല്ലാവർക്കും ഉപകാരമാകുന്നതും അതുപോലെ എല്ലാവരിലേക്കും സത്യമായ കാര്യങ്ങൾ മറ്റുള്ളവർക്കുകൂടി ബോധ്യപ്പെടുത്തുന്ന ബോധ്യമാകുന്ന രീതിയിൽ നിജസ്ഥിതി മാത്രം നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ചാനലുകളാണെങ്കിൽ അവർക്ക് മറ്റു മറ്റ് പ്രശസ്തിക്കു വേണ്ടിയല്ല നിലനില്പിനുവേണ്ടിയുമല്ല യാഥാർഥ്യം മനുഷ്യർലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ബോധത്തോടുകൂടിയാണ് ഒരു ചാനലുകൾ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ജനങ്ങങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ അവരുടെ ആ ചാനലുകൾക്ക് ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഉണ്ടായിരിക്കും അല്ലാത്ത ചാനലുകൾ ആൾക്കാര് കാണാൻ താല്പര്യപ്പെടത്തില്ല പിന്നെ ചാനലുകൾ സംപ്രേഷണംചെയ്യ് ചെയ്യുന്ന ആൾക്കാർക്ക് വാർത്തകൾ വാ വായിക്കുന്ന ആൾക്കാ ആൾക്കാര് ചിലപ്പോൾ തല്ലുകിട്ടാനുള്ള ചാൻസും അവസരവും അവർതന്നെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് എൻ്റെ ചിന്താഗതിയെന്ന് പറയുന്നതു നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ള എന്ത് നമ്മൾ ശരിയെന്നു തോന്നുന്നോ നമ്മൾക്ക് ശരിയെന്നു നമുക്കു തോന്നുന്നതും മറ്റുള്ളവർക്ക് ശരിയാണെന്ന് ആണെന്ന് അവർ പറയുന്നതുമായ കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ മാത്രം അത് സംപ്രേഷണം ചെയ്യുക അല്ലാത്തതാണെങ്കിൽ അതിന് നമ്മൾ അതേ അത് അതിനെ അതുപോലതന്നെ അവഗണിക്കുക എപ്പോഴും നല്ലത് മാത്രെമേ നിലനിൽക്കൂ എന്നുള്ള ഒരു ബോധം ബോധ്യം എല്ലാ ചാനൽ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും